എനിക്ക് ഇലക്ട്രോണിക് പതിപ്പുകളേക്കാൾ കൂടുതലിഷ്ടം അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കാൻ തന്നെയാണ് കാരണം അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഒരു കഥയോട് ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് മാത്രവുമല്ല വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഒരു ഇഷ്ടവും ആ ഒരു പുസ്തകത്തോട് തോന്നുന്നതും നമുക്ക് അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് അതുപോലെതന്നെ വീണ്ടും ആ ഓരോ പുസ്തകങ്ങൾ വാങ്ങാനുമുള്ള ഒരു പ്രോത്സാഹനവും നമുക്കുണ്ടാവും നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ മണം അതുപോലെതന്നെ നമ്മള് അതിനെ കാണുന്നതും അതിനെ തൊടുന്നതും അതിനെ അനുഭവിക്കുന്നതും എല്ലാം നമ്മളുടെ കൂടുതലൊരു അർഥത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പക്ഷെ അതൊന്നും ഇലക്ട്രോണിക് റീഡിൽ റീഡിങ്ങിൽനിന്ന് നമുക്ക് കിട്ടില്ല ഒരു പുസ്തകം വാങ്ങാനുള്ള മടി കൊണ്ടാണ് പലരും ഈ ഇലക്ട്രോണിക് റീഡിങ് തേടി പോവുന്നത് മാത്രവുമല്ല ഇലക്ട്രോണിക് റീഡിങ്ങിൽ നമുക്ക് തൻ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് ഡിസ്റ്ററാക്ട് ആവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് കാരണം നമ്മൾ വായിക്കുന്നത് തന്നെ ഈ ടാബ്ലെറ്റ്സിലും ഫോണിലും ഒക്കെയാണ് അപ്പോള് അതിൽ വരുന്ന മെസേജസ് കോൾസ് നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കും പുസ്തക വായന നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം കൂട്ടിത്തരും നമ്മുടെ തലച്ചോറിനും ശരീരത്തെയും പുസ്തക വായന ഒരുപാട് നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് മാത്രവുമല്ല നമ്മുടെ വൊക്കാബുലറി മെച്ചപ്പെടുത്താൻ പുസ്തക വായനയാണ് ബെസ്റ്റ് അതുപോലെതന്നെ പലരുടെയും ഡിപ്രെഷൻ സ്റ്റേജ് അതായത് വിഷാദരോഗം മറികടക്കാനും പുസ്തക വായന ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ ഇലക്ട്രോണിക് പതിപ്പുകൾ അച്ചടിച്ച പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ആക്സസബിളാണ് അതായത് നമുക്ക് പെട്ടെന്ന് കിട്ടും ഈ അച്ചടിച്ച പുസ്തകങ്ങളെക്കാൾ അതുകൊണ്ടുതന്നെ എല്ലാവരും ഈ ഇലക്ട്രോണിക് പതിപ്പുകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ എല്ലാവരും മടിയന്മാരും മടിച്ചികളുമാകുന്നു മാത്രവുമല്ല കൂടുതൽ നേരം നമ്മൾ വായിക്കാനായി ഈ സ്മാർട്ട് ഫോണും ടാബ്ലെറ്റുമൊക്കെ നോക്കി ഇരിക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണുവേദനയും തലവേദനയും ഒക്കെ ഉണ്ടാവും മാത്രവുമല്ല രാത്രികാലങ്ങളിൽ നമ്മള് ഈയൊരു ഇലക്ട്രോണിക് ഡിവൈസില് നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയില് ഡാർക് സൾ സർക്കിൾസൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത് പിന്നീടൊരു കാലത്ത് നമുക്ക് വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്തിക്കാനും ഒരുപാട് ചാൻസുണ്ട് ഞാൻ ഓഡിയോ ബുക്സ് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒട്ടും ഒരു എൻഗേജിങ് അല്ല നമ്മള് വായിക്കുന്ന അത്രയും ഒരു എൻഗേജിങ് അല്ല ഈ ഓഡിയോ ബുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പോലുമുള്ള ഒരു സമയം ഓഡിയോ ബുക്കിൽ നിന്ന് കിട്ടില്ല ഒരു ബുക്ക് വാങ്ങിക്കുന്നതിനെക്കാൾ കൂടുതൽ പൈസയാണ് ഒരു ഓഡിയോ ബുക്ക് എടുക്കാനായിട്ട് ഓഡിയോ ബുക്കില് പെട്ടെന്ന് വായിച്ചുകൊണ്ടുപോകുന്നത് കൊണ്ടുതന്നെ ചിലതൊന്നും നമുക്ക് വ്യക്തമാവുകയുമില്ല ചില സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള അല്ലെങ്കില് ഒന്ന് വ്യക്തമാക്കാനുള്ള ഒരു സമയം നമുക്ക് ഈ ഓഡിയോ ബുക്കിൽ നിന്ന് കിട്ടില്ല ഈ ഇലക്ട്രോണിക് റീഡിങ്ങിലെ പോലെതന്നെ ഓഡിയോ ബുക്കിലും പെട്ടെന്ന് ഡിസ്റ്ററാക്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളൊരു ബുക്ക് കയ്യിൽ പിടിച്ച് വായിക്കുന്ന ഒരു സുഖവും ഒന്നും ഒരു ഒരു ഇലക്ട്രോണിക് റീഡിങ്ങിലും അതുപോലെതന്നെ ഒരു ഓഡിയോ ബുക്കിലും നിന്നും കിട്ടില്ല